ഹലോ വള കടയല്ലേ ആ ഞാൻ നമ്മുടെ കൃഷി തുടങ്ങി ഒന്നാം വളം ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന എന്തു മാത്രം കൊടുക്കും ഈ ഫാക്ടമ്പഫോസും ഒക്കെ ഒരു ഏക്കറിന് രണ്ട് ചാക്ക് കൊടുക്കണമെന്ന് നമ്മുടെ കൃഷിക്ക് നമ്മുടെ പയ്യൻ പറയുന്നു ആവശ്യമുണ്ടോ അത്രയും ഞാൻ ഒരു ഏക്കറിന് രണ്ട് ചാക്ക് ഫാക്ടംഫോസ് കൊടുക്കണമെന്ന് നമ്മുടെ വളം ഇടാൻ വന്നവൻ പറയുന്നു അത്രയും ആവശ്യമുണ്ടോ ആ ഒരു ചാക്ക് മതിയല്ലേ അപ്പം ഇപ്പം ഈ ഒരു ചാക്ക് ആവശ്യമുണ്ടോ ആ ഫാക്റ്റംഫോസും പൊട്ടാസിയം യൂറിയ ഒരു പത്ത് കിലോ മതിയായിരിക്കും അല്ലെ വേണ്ട അല്ലേ ആ ആ രണ്ടാം വളമായിട്ട് ചേർക്കാം അല്ലേ

ആണോ അ കഴിഞ്ഞ ദിവസം ഞാൻ വേറെ ഒരു ഞാൻ വേറേ ഒരു വളമാണ് വേറെ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവർ പറയുന്നു ഏതാണ്ട് ഒരു പുതിയ സാധനം ഇറങ്ങിയിട്ടുണ്ട് കൂടുതൽ വിളവ് കിട്ടത്തക്ക രീതിയിലുള്ളതാണെന്ന് പറയുന്നു അങ്ങനെ വല്ല സാധനവും ഇറങ്ങിയിട്ടുണ്ടോ ആ അതൊക്കെ അവസാനത്തേക്ക് മതിയായിരിക്കുമല്ലോ അല്ലേ ആയിക്കോട്ടെ ഞാൻ നാളെ രാവിലെ വരാം നമുക്ക് ആദ്യത്തെ ഒന്നാം വളത്തിനുള്ളത് എടുക്കാം അവിടെ നിന്ന് ഒ